ആട്ട കഥ സാഹിത്യത്തിൽ എന്തുകൊണ്ടും പ്രഥമ സ്ഥാനത്തിന് അർഹമായ കൃതിയെന്ന് നിരൂപകർ വാഴ്ത്തിപ്പാടുന്ന കൃതിയാണ് ഉണ്ണിയായി വാര്യരുടെ നളചരിതം ഇത് നാല് ദിവസം കൊണ്ട് ആടത്തക്കവണ്ണമാണ് കവി രൂപപ്പെടുത്തിയിട്ടുള്ളത് മനോഹരമായ ഒരു ദൃശ്യ കാവ്യത്തിൻ്റേയും ഗുണഗണങ്ങളെല്ലാം ഇതിൽ പരിലസിക്കുന്നുണ്ട് മലയാള സാഹിത്യത്തിൽ ആകമാനം പരിശോധിച്ചാലും നളചരിതത്തിന് ഏറ്റവും സമുന്നമായ സ്ഥാനമാണുള്ളത്